ഇപ്പോൾ മൃഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പൊതുവായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഓരോ മൃഗത്തിനെ വാങ്ങുമ്പോഴും അത് പഞ്ചായത്തിലും കാര്യങ്ങളിലൊക്കെ അറിയിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പം പട്ടിയെ ഒരു പട്ടിയെ വാങ്ങി കഴിഞ്ഞാൽ പഞ്ചായത്തിൽ അറിയിച്ച് അതിന് കുത്തിവെപ്പ് കാര്യങ്ങൾ ഒക്കെ എടുക്കുക ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറെ കർശനമായിട്ടുള്ള നടപടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തെരുവിലൂടെ അലയുന്ന പട്ടികൾ ആണെങ്കിലും ആൾക്കാരെ ഉപദ്രവിക്കുക ആൾക്കാരെ കടിക്കുക അങ്ങനെ കുറെ കുട്ടികൾ കുട്ടികളെ വെറുതെ പോയി കടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് പേ വിഷബാധ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് മെയിൻ ആയിട്ടും കുത്തിവെപ്പ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാം ചെയ്യണം എന്ന് ഉള്ള ഒരു നിബന്ധനയും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നത് അപ്പോൾ അത് ഇപ്പോൾ വന്ന് വന്ന് വന്നതായിട്ടുള്ള ഒരു നി നിബന്ധനയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവർ അവരെ ബാധിച്ചിട്ടുണ്ട് കാരണം ചില വീടുകളിൽ ഒക്കെ ഇഷ്ടംപോലെ പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെ എല്ലാം കുത്തിവെപ്പ് എടുക്കണമെങ്കിൽ ഭയങ്കര പാട് കാര്യങ്ങൾ ചിലത് അഗ്ഗ്രസ്സീവ് ആയിട്ടുള്ള പട്ടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അവരെ ഒക്കെ കുത്തിവെപ്പ് എടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള പാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ യൂട്യൂബ് ചാനലുകളിൽ ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള സു സൂചനകളെ കുറിച്ച് ഒക്കെ പറഞ്ഞിട്ടുണ്ട്